ഹലോ പിന്നെ ഞാനേ കഴിഞ്ഞ ദിവസം പിന്നെ അതെ ക്യാബ് ഏജൻസിയല്ലേ ആ ഞാൻ കഴിഞ്ഞ ദിവസം പിന്നെ ഞങ്ങൾ പിന്നെ ബാംഗ്ലൂരിലേക്ക് ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പം നമ്മളെന്താണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചുവരുമ്പോൾ ഞാൻ പിന്നെ എൻ്റെ പേഴ്സ് വെച്ച് മറന്നുപ്പോയി അപ്പോൾ പേഴ്സിൽ കുറച്ച് ക്യാഷും എൻ്റെ ഡീറ്റെയിൽസും ക്യാഷ് പോയാലും കുഴപ്പമില്ല പക്ഷേ എൻ്റെ ഡീറ്റെയിൽസ് കുറച്ച് അതായത് ആധാർ പാൻ പിന്നെ ഐ ഡി കാർഡ് പിന്നെ പാസ്സ് ബുക്ക് അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും എൻ്റെ അതിലാണ് ഉണ്ടായിരുന്നത് പിന്നെ അപ്പോൾ ആ അതിലുണ്ടോ പിന്നെ ഒന്ന് ഒന്നു നോക്കാൻ പറയുമോ എനിക്കിങ്ങനെ പിന്നെ ഇതിൻ്റെ അടിയിലോ അങ്ങനെ എന്തുകൊണ്ടെന്ന് ആ ആ ഹോൾഡ് ചെയ്യാം ഹോൾഡ് ചെയ്യാം ഒന്ന് നോക്കാൻ പറയണേ ആ ഓക്കെ ഞാൻ ഹോൾഡ് ചെയ്യാം